ഹലോ ആ സെൻ ജോസഫ് ഓട്ടോ അല്ലേ ആ അതെ ആ ഞാൻ കൊടുപനയിൽ കളത്തിൽ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് ആ ആ ചേട്ടാ എനിക്കെ ട്രിവാൻഡ്രത്തോട്ട് പോകേണ്ടൊരു അത്യാവശ്യമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആലപ്പുഴേന്ന് പന്ത്രണ്ട് മണിക്കാണ് ബെസ്സ് അപ്പം എനിക്ക് നമുക്കിവിടുന്നൊരു പത്തരയൊക്കെ ആവുമ്പോഴത്തേക്ക് പോകുമെന്നൊക്കെ രീതിയിലൊന്ന് വരാവോ ആ പന്ത്രണ്ട് മണിക്കെനിക്ക് ആലപ്പുഴേന്ന് ബെസ്സ് സ്റ്റാട്ട് ചെയ്യും അപ്പോൾ പന്ത്രണ്ട് ആവുമ്പോഴത്തേക്ക് എനിക്ക് ആലപ്പുഴയിൽ ചെല്ലണം ആ ശരി ഓക്കെ ഓ ഞാനൊരു പത്തര ആകുമ്പോൾ റെഡിയായിട്ട് നിന്നാൽ പോരെ ആ ശരി ഓക്കെ ഞാനൊരു പത്തര ആകുമ്പോൾ റെഡിയായിട്ട് നിൽക്കാവേ ആ അപ്പോഴത്തേക്ക് വന്നാൽ മതി ആ ശരിയെങ്കിൽ ഓക്കെ താങ്ക് യൂ